നനച്ച് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി കഴിച്ചതിൻ്റെ ആരോഗ്യം കൊണ്ടാണ് അവർ ഇന്നും ഇന്നത്തെ കാലത്തും ജീവിച്ചിരിക്കുന്നത് എന്നാൽ നമ്മൾ ഇന്നത്തെ ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും കഴിച്ച് കഴിച്ച് നമ്മളുടെ ആരോഗ്യ നില വളരെയധികം വശളായി കൃഷിയോടുള്ള ഇഷ്ടവും

കൃഷി ചെയ്യാനുള്ള വീട്ടിൽ സ്ഥലവും ഇല്ല ഇനി അഥവാ സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ എന്തിനാണ് നമ്മൾ സമയം മെനക്കെടുത്തുന്നത്

കൃഷിയെ നമ്മൾ എത്രത്തോളം പണ്ട് ആൾക്കാരെ സ്നേഹിച്ചിരുന്നുവോ അത്രത്തോളം അവരെ അവർ ചെയ്യുന്ന കൃഷിക്ക് അവർക്ക് ലഭിച്ചു വന്ന വിളകളും തിരിച്ചു നൽകിയിരുന്നു ആ ആ വത്ത് കാലത്ത് കാ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാ പത്ത് തിന്നാം എന്ന് പണ്ട് പറയുന്ന പഴമൊഴി ക്കാൾക്ക് ഇന്ന് ഇന്നത്തെ ആൾക്കാർക്കൊന്നും അതിനുള്ളൊരു താല്പര്യമില്ല പൈസ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ നമുക്ക് ഏത് സാധനവും വാങ്ങിക്കാം എന്നാൽ കൃഷിയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഏതൊരു സാഹചര്യങ്ങളിലും ആയിക്കോട്ടെ നമ്മൾ ഉള്ള സ്ഥലത്ത് കഴിയുന്നതിൽ ഉപരിയായിട്ട് കൃഷി വെച്ച് പിടിപ്പിക്കുകയും നമുക്കതിൽ നിന്നുള്ള വിളകൾ ഉണ്ടാക്കുകയും ചെയ്യും ഒരു കർഷകനെ സാധനം ഉൽപാദിപ്പിക്കുന്ന ഒരു വിലയിൽ നിന്ന് ഒരു വിത്തിൽ നിന്ന് അതിൻ്റെ അതിൻ്റെ മൂല്യം കിട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷം പുറത്ത് നിന്ന് വാങ്ങുന്നതിന്റെ അത്രയും വരത്തില്ല നമ്മൾ കൃഷിയെ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അതുപോലെ അത് തിരിച്ച് നമ്മളെയും സ്നേഹിക്കും നല്ല വിളകൾ തരും നല്ല കായ് കനികൾ തരും വിഷമില്ലാത്തത് കഴിക്കാൻ നമുക്ക് സാധിക്കും അത് നല്ല വിളകൾ വിഷം കൂടാതെ ഉള്ള പച്ചക്കറികൾ കായ്കനികൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ഏറെയാണ്

അധ്വാനിച്ച് പണിയെടുക്കുന്നതിനോടോ ആർക്കും താല്പര്യമില്ല നമ്മൾ അധ്വാനിച്ച് നിലത്ത് ഉഴുത് മറിച്ച് കിട്ടുന്ന ആ

കൃഷിയെ അത്രത്തോളം ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്ത് അന്നും ഇന്നും ജീവിക്കുന്ന വ്യക്തികൾ വളരെ കുറവാണ്